എനിക്ക് പുസ്തകം എനിക്ക് പുസ്തകം വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പുസ്തകം വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ അത് ഞാൻ ഇഷ്ടമുള്ള പുസ്തകമാണെങ്കിൽ ഞാൻ കൂടുതൽ സമയം ഇരുന്ന് ഞാൻ അത് വായിച്ചു തീർക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞു ഉച്ച കഴിഞ്ഞാണ് കൂടുതലും എനിക്ക് സമയമുള്ളത് അപ്പോഴത്തേക്കും ഞാൻ അത് വായിച്ചു തീർക്കും വായിച്ചു തീർക്കും പിന്നെ ജോലി കഴിഞ്ഞിട്ടാണ് പറ്റത്തുള്ളൂ വീട്ടിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അത് ജോ വായിക്കാൻ പറ്റത്തുള്ളൂ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നതിന് ഇടക്കാണെങ്കിലും ഇച്ചിരി ചെയ്ച്ചേച് ഓടിപ്പോയി ഇരുന്ന് ഓടി പ്പോയി ഇരുന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ആറ് ഏഴ് മാസം കഴിഞ്ഞാൽ അങ്ങനെ ലക്ഷ്യങ്ങൾ വച്ചൊന്നും വായിക്കാറില്ല ചില പുസ്തകത്തിനോട് ചില പുസ്തകം അങ്ങനെ ഇഷ്ടം തോന്നാത്തത് ആണെങ്കിൽ അത്ര ഒത്തിരി ഇഷ്ടമൊന്നുമില്ലെങ്കിൽ ഞാൻ അത് അനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ വായിച്ചു മാറാറുള്ളൂ അങ്ങനെയാണ് പുസ്തകം വായിക്കാറുള്ളത് വായിക്കുന്നത് ഇഷ്ടമുള്ള പുസ്തകമാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയാൽ അത് പെട്ടെന്ന് വായിച്ചു എനിക്ക് അത് തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹം കാണും അത് ഞാൻ അത് വായിച്ചു തീർക്കാറുമുണ്ട് മറ്റേ പുസ്തകാണ് അത്ര താൽപ്പര്യമില്ല എങ്കിൽ കൊറേശ്ശെ പതിയെ പതിയെ പതിയെ പിന്നെ വായിക്കാം പിന്നെ വായിക്കാം എന്നുംപറഞ്ഞ് ഇച്ചിരിസമയെടുത്ത് അത് വായിച്ച് അങ്ങനെ തീർക്കാൻ തീർക്കാറുളളൂ പിന്നെ ലക്ഷ്യങ്ങളൊന്നും വച്ച് ലക്ഷ്യങ്ങൾ ഒന്നും ലക്ഷ്യങ്ങളൊന്നും ഞാൻ വച്ച് അങ്ങനെ ഒന്നും വായിക്കാറില്ല നമ്മൾ അങ്ങ് വായിച്ചു പോകുന്നു അത്രയേ വായിച്ചു പോകും അത്രയേ അതിനകത്ത് ഉള്ളൂ ഒരു ഒരു ഒഴുക്കിനൊത്ത് എന്നല്ല ഇഷ്ടമുള്ള പുസ്തകം നല്ല രീതിയിൽ അത് പെട്ടെന്ന് വായിച്ചു എനിക്ക് തീർക്കണമെന്ന് തോന്നും അത് മീൻസ് നമ്മൾ പ്പത്തേനും പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു തീർക്കും മറ്റേത് ആണെങ്കിൽ പതുക്കെ പതുക്കെ വായിക്കും